ഹലോ ഞാൻ സ്കൂൾലെ ടീച്ചറാ സാറാണ് ആവശ്യന്നെച്ചാൽ നമ്മുടെ സ്കൂളിൽ പത്ത് മുന്നൂറ് പിള്ളേരുണ്ടവാറുടെ യൂണിഫോം ആ തയ്ക്കണമായിരുന്നു അതിന് വേണ്ടിയാണ് വിളിച്ചത് എത്രയും പെട്ടന്ന് തരാമോ അത്രയും പെട്ടന്ന് വേണം അതിന് വേണ്ടിയാണ് മാഡത്തിനെ വിളിച്ചത് ഇല്ല മുന്നൂറ് കുട്ടികളുണ്ട് ആണും പെണ്ണായിട്ട് എന്നാൽ ഈ രണ്ട് ജോഡി വെച്ച് അത് തെയ്ക്കണം ഒരു മാസമല്ല അതിന് മുമ്പിട്ട് തരണം എത്രയും പെട്ടന്ന് തരാൻ ഒരു മാസം വരെ ഒരു മാസം വരെ ആക്കരുത്

അല്ലല്ല ഞാൻ ഞങ്ങളുടെ മുന്നൂറ് പിള്ളാരെയും തുണി ഞാൻ തന്നെ കൊണ്ട് വരും പക്ഷേ പിള്ളേർ വന്ന് പിള്ളാരുടെ അളവ് ഞാൻ അത് അവരുടെ പഴയ ഡ്രസ്സ് അളവ് ഞാൻ കൊണ്ടത്തരാം ആ അളവനുസരിച്ച് ആ ത തെയ്ച്ചാൽ മതി ആണും പെണ്ണുവായിട്ട് മുന്നൂറ് പിള്ളാരുണ്ട്

ഇവിടത്തെ പഠിക്കുന്ന അഞ്ച് തൊട്ട് ഏഴ് വരെയുള്ള പിള്ളേർ

ആൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എന്ത് എന്ത് ഫ്രോക്കല്ലേ ഇപ്പോൾ എന്തുവാ അറിയത്തില്ല ഈ ഈ അ അര വരെ ഇടുന്ന അതിൻ്റെ സ സാമ്പിൾ ഞാൻ കൊണ്ടെരുന്നുണ്ട് ആ ചുരിദാറ് ചുരിദാറ് ആ ആ ഫോട്ടോ ഉണ്ട് അതെ അതെ അത് നല്ല രീതി തയ്ക്കേം വേണം

ആ റേറ്റിനൊന്നും കുഴപ്പം ഇല്ല റേറ്റൊക്കെ തരാം പക്ഷേ നല്ല നല്ല രീതിയിൽ തയ്ക്കണോന്നേ ഉള്ളൂ അപ്പോൾ തയ്ക്കേം വേണം എത്രയും പെട്ടന്ന് തിരിച്ച് തരികയും വേണം നിങ്ങളുടെ പിന്നെ ടെയ്ലറിംഗ് ഷോപ്പിലെത്ര പേരുണ്ട് തെയ്ക്കുന്നത് ആ രണ്ട് പേരും കൂടി തുന്നാനുണ്ടാവുമ്പോൾ ഇത് മുന്നൂറ് പേർക്ക് മുന്നൂറ് പേരുടെ നിങ്ങൾ തെയ്ക്കാനാവത്തുള്ളോ അവസാനം നിങ്ങളാ കുഴപ്പം ഇല്ല എത്രയും പെട്ടന്ന് തരുക ഒരു മാസേലും എടുക്ക് എന്നാലും എത്രയും പെട്ടന്ന് തരുക അത്രേയുള്ളൂ അപ്പോൾ അത് നാളത്തന്നെ കൊണ്ട് വരും നാളത്തന്നെ

ഞാൻ നാളെ ഇത് സെപറേറ്റ് സെപ്പറേറ്റഡായിട്ട് കൊണ്ട് വരും അതോ ഇനി ആ അതൊക്കെ നാളെ കാണുമ്പോൾ അറിയാം ആ എന്നാൽ അതും കൂടെ ഓക്കെ അത് കുഴപ്പം ഇല്ല ഞാൻ നാളെ കാണാൻ അന്നേരം ഓക്കെ ഓക്കെ എന്നാൽ ബൈ ശരി ശരി ശരി